നമ്മുടെ ഗ്രാമത്തിൽ നല്ല രീതിയിലുള്ള വരൾച്ച കാര്യങ്ങളൊക്കെ ഇനിയങ്ങോട്ടേക്കുള്ള കാലഘട്ടങ്ങളിലാണ് ഉണ്ടാകുക ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇനി ചിലപ്പോൾ വരാനുള്ള സാദ്ധ്യതകളൊക്കെ കാണുന്നുണ്ട് കാരണം നമ്മുടെ ഓരോ ആൾക്കാരുടെയും ജീവിതം മാറി മറിഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പം അതൊരു പ്രശ്നമായിട്ടാണ് മാറിയിരിക്കുന്നത് കാരണം എന്നുവെച്ചാൽ ജനങ്ങൾ ചെയ്യുന്ന ദ്രോഹം എന്ന് പറയുന്നത് ഭൂമിയോട് പല രീതിയിലും ദ്രോഹങ്ങൾ ചെയ്യുന്നുണ്ട് മരം മുറിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഭൂമി തന്നെ പ്രതികരിച്ചു കൊണ്ട് ഇരിക്കുകയാണ് ഇപ്പം നല്ല രീതിയിലുള്ള ചൂട് കാര്യങ്ങളൊക്കെ ഭൂമിയിലേക്ക് അടിക്കാൻ തുടങ്ങി നമ്മളിനി അങ്ങോട്ട് വരൾച്ചയുടെ ഒരു കാലഘട്ടമായിരിക്കും എന്തായാലും